ജോലിക്ക് പുറമേ എൻ്റെ ഹോബി എന്ന് പറയുന്നത് ഒഴിവ് സമയങ്ങളിൽ വീ വീട്ടിൻ്റെ പരിസരത്ത് കൂടി വീട്ടു മുറ്റത്ത് കൂടിയൊക്കെ നടക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇപ്പോൾ നമ്മുടെ പിന്നെ ചെടികളും അതുപോലെ മരങ്ങളും പിന്നെ നമ്മുടെ ചുറ്റുവട്ടം ഒക്കെ ആസ്വദിച്ച് വെറുതെ ഒരുപാട് ദൂരത്തേക്ക് ഒക്കെ നടന്ന് പോകാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ തന്നെ ചെറിയ കുട്ടികളുടെക്കൂടെ വെറുതെ ടൈം സ്പെൻഡ് ചെയ്യാനും എനിക്ക് ഇഷ്ടമാണ് ഞാൻ വെറുതെ ചെറിയ മക്കളുടെ കൂടെയൊക്കെ കളിക്കുമായിരുന്നു അതുപോലെ തന്നെ ആ മക്കൾക്കും എന്നെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ അതുപോലെ നമ്മൾ ഇപ്പോൾ കുട്ടികളോട് കൂടി കൂടി കളിക്കുമ്പോഴാണല്ലോ നമ്മളുടെ ഒരു കുട്ടിത്തം നമുക്ക് പുറത്ത് എടുക്കാൻ പറ്റുന്നത് അപ്പോൾ അത് പിന്നെ അതുപോലെ എൻ്റെ ഒരു ഹോബിയാണ് എനിക്ക് ഗാനം ആലപിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് പാട്ട് ഒക്കെ പാടി നല്ല ചില്ല് ചെയ്ത് ഇരിക്കും